ഇപ്പം ഞാൻ ഫോട്ടോഗ്രാഫി മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് കൂടുതലായിട്ടോ അങ്ങനത്തെ പരിപാടികളിലൊക്കെ പങ്കെടുക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു അല്ലാണ്ട് ഇങ്ങനത്തെ ശില്പശാലകള് അങ്ങൻത്തെ പല രീതിയിലുള്ള പ്രോഗ്രാംസും കാര്യങ്ങളുമൊക്കെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലുണ്ടായിരുന്നു പക്ഷേ ഞാന് അതിലൊന്നും അങ്ങനെ പങ്കെടുത്തിട്ടില്ല കാരണമെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നല്ല രീതിയിലുള്ള പ്രൊഫഷണലൊന്നും ആവാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാന് ഉള്ള തയാറെടുപ്പിലാണ് കാരണം എന്തെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനത്തെ പരിപാടികളിലൊക്കെ പങ്കെടുക്കണമെങ്കില് നമുക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ പഠിച്ച് അതിനെ കുറിച്ച് നമ്മളറിഞ്ഞ് അതിനെ അതെന്തിനാണെടുക്കുന്നത് ഏത് തരത്തിലുള്ള ഫോട്ടോസ് എങ്ങനെടുക്കണം അതിന് ഓരോ അർത്ഥങ്ങളും കാര്യങ്ങളും അങ്ങനത്തെ പല രീതിയില് നമ്മളെടുത്ത് കഴിഞ്ഞാൽ മാത്രമെ നമുക്ക് അങ്ങനത്തെ ശില്പശാലകളിലൊക്കെ പങ്കെടുക്കാനും നമ്മുടെ ഫോട്ടോഗ്രാഫ്സ് അതിലവിടെ അതായത് എന്താ പറയ്യുക നമ്മൾക്ക് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് വെക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാധിക്കുകയുള്ളു അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല പിന്നെ നല്ല ഞാന് നല്ല രീതിയിലുള്ള ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പം നമുക്ക് അതിൽ നിന്ന് തന്നെ പഠിച്ച് നല്ല രീതിയിലാവുമ്പോൾ നമുക്ക് അവിടേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണെൻ്റെ ഒരു വിശ്വാസം